നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവേ കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും ഉൾപ്പെടെ എല്ലാവരും ഈ ഫോണും ടി വിയും ഇതുപോലുള്ള ചെറിയ ചെറിയ ഇലക്ട്രോണിക്ക് ഡിവൈസിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലെയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇതുതന്നെ മതി ഈ ഫോണ് അതുപോലെ തന്നെ ടി വി ഇതിലൊക്കെയാണ് ആൾക്കാർക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് ഇതുപോലുള്ള അപ്പുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതു കൊണ്ട് തന്നെ അവർക്ക് വീടിന് പുറത്തേയ്ക്ക് ഇറങ്ങാനും മറ്റുള്ളവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ നിലനിർത്താൻ അവർക്ക് അത് കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പം ഇവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു മനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒരു വിനോദത്തിലൊന്നും ഏർപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല അതിലൊക്കെ ഇവർ അതിലൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുന്നു നമ്മുടെ പണ്ടത്തെ കാലഘട്ടം പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ മടലൊക്കെ വെട്ടി ബാറ്റുണ്ടാക്കുന്നു റബ്ബർ ചുറ്റി റബ്ബർ പന്തുണ്ടാകുന്നു അതുപോലെ ഒരുപാട് വിനോദങ്ങൾ നമ്മൾ അന്ന് ചെറിയ ഫുട്ബോൾ കളിക്കുന്നു അന്നൊന്നു അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിനോദങ്ങൾ കണ്ടെത്താനുള്ള ഒരുപാട് അവസരങ്ങളും അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള സന്തോഷവും ആരോഗ്യപരമായിട്ടുള്ള പല ഗുണങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പക്ഷേ അതിൽ നിന്നൊക്കെ കാലം ഒരുപാട് സഞ്ചരിച്ച് വന്നപ്പഴ്ത്തേക്കും അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ മാറി തുടങ്ങി ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നപോലെ ആൾക്കാരൊക്കെ ഒരുപാട് ഒരുപാട് മാറി ചിന്തിച്ച് ഇപ്പോൾ എല്ലാം എല്ലാം ഒരു സ്ക്രീനിന് മുന്നിലേക്കായിട്ട് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേയ്ക്കാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷൻ വന്നിരിക്കുന്നത് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം പണ്ടൊക്കെ ആ ആൽ ആൽത്തറ പോലെ ഉള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് നമ്മുടെ സ്കൂളിൽ സംസാരിക്കുന്നു കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വരുന്നു അവിടെ അവിടെ നമ്മൾ എന്താ പറയാ കോല്കളി അതുപോലത്തെ ഉള്ള പണ്ടത്തെ കുറെ കളികളൊക്കെ ഉള്ളപ്പം നമുക്ക് അതൊക്കെ അവരുടെ മനസ്സിൽ ഒരു സന്തോഷവും അതു കഴിഞ്ഞ് പ്രായമായവരും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ ഒരു ഒത്തൊരുമയും അവരുടെ ബന്ധം നിലനിർത്താനും ഒക്കെ നമുക്ക് അതു കൊണ്ട് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാത്തത് വലിയ ഒരു കുറവ് തന്നെയാണ് ആൾക്കാരൊക്കെ ഒരുപാട് മാറി ചിന്തിക്കാൻ തുടങ്ങി പണ്ടൊക്കെ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് വിനോദത്തിൽ ഏർപ്പെടാനും കൂടുതൽ അവസരങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹെൽത്ത് നല്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരുപാട് അന്നത്തെ കാലത്ത് നമ്മൾ ഇതുപോലുള്ള വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകു ഉണ്ടാകുന്നില്ലായിരുന്നു